കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ സംരക്ഷണത്തിൽ തൃശൂരിൻ്റെ പങ്ക് വളരെ വലുതാണ് തൃശൂരിനെ വിശേഷിപ്പിക്കാറ് കേരളത്തിൻ്റെ സാംസ്കാരിക നഗരം എന്നാണ് സംഗീത നാടക അക്കാദമി കേരള കലാമണ്ഡലം അങ്ങനെ പലതരത്തിലുള്ള ഇതുപോലുള്ള ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളെ സ്ഥാനാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തൃശ്ശൂർ ഒരുപാട് കലാകാരന്മാർ ജനിച്ച് വീണ മണ്ണാണ് തൃശ്ശൂർ അതുപോലെത്തന്നെ പാചകരീതികളും പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിലും അവ നിലച്ചുപോകാതെ നാവിലെ രുചി നിന്നുപോകാതെ കാത്തുസൂക്ഷിക്കുന്നതിനും ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ ഒരുപാട് കലാകാരന്മാരും അവരുടെ അവരുടെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ